ഹലോ ഇത് മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന ബസ് ബസ്സിലെ കണ്ടക്ടർ കണ്ടക്ടർ അല്ലെ ഞാൻ ഫാത്തിമ സീറ്റ് നമ്പർ പന്ത്രണ്ടിലെ ഫാത്തിമയായിരുന്നു

ഇപ്പോൾ സമയമിത്രയും ആയില്ലേ ഇപ്പോൾ ഫുഡ് ഒക്കെ കഴിക്കാതിരുന്നാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയല്ലേ സമയം രണ്ട് മണിയായില്ലേ അപ്പോൾ ഇങ്ങനെ നിർത്താതിരുന്നാൽ പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ഇതൊക്കെ നേരത്തെ പറയേണ്ടതല്ലായിരുന്നോ അല്ലാതിപ്പോൾ ഇതൊക്കെ അവ ഇങ്ങനെ സമയം കിട്ടുമെന്ന് ഓർത്തല്ലേ ഇങ്ങനെ സീറ്റ് ബുക്ക് ഒക്കെ ചെയ്തു വരുന്നത് അവർക്ക് ഒത്തിരി പേര് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഓരോ ഫുഡ് ഒക്കെ കഴിക്കാതിരുന്നാൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ എന്നാ ചെയ്യുന്നേ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തി ഒരു കുറച്ച് നേരമെങ്കിലും എന്തെങ്കിലും ഒക്കെ കഴിക്കാനുള്ള സമയം

അതെ പക്ഷെ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുമല്ലായിരുന്നല്ലോ ചെയ്യേണ്ടത് അല്ലാതെയിപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ മിസ്റ്റേക്കാണെന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഫുഡ് കഴിക്കാതിരുന്നിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റാകില്ലേ ആ അതുമല്ലാ അപ്പം എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി താ അല്ലാതെയിപ്പം അത്രയും ദൂരം യാത്ര ചെയ്യണോ അപ്പോൾ എന്നാ ചെയ്യാനാണിപ്പോൾ ഇത്രയും ദിവസം യാത്ര ചെയ്യേണ്ടേ ഇതിപ്പോൾ ഫുഡ് കഴിക്കാതിരുന്നിട്ട് ഇപ്പം എത്ര ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ അവർക്കൊക്കെ ഗുളിക കഴിക്കാനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് നിങ്ങളുടെ നേരിട്ട് വന്നു നിങ്ങളുടെ തലയിലല്ലേ കുറ്റം വരികയുള്ളൂ ആ അത് പറ്റത്തൊന്നുമില്ല ഫുഡ് കഴി ഫുഡ് തന്നെ വേണം പക്ഷെ ഇപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരിതാകില്ലേ ഫുഡ് തന്നേ പറ്റൂ ഫുഡ് തന്നേ പറ്റൂ

ആ ഓക്കേ ഓക്കേ ഓക്കേ